മലയാളം നമ്മുടെ മാതൃഭാഷയായത് കൊണ്ട് തന്നെ മലയാളത്തിലെഴുതുന്ന സംസാരിക്കുന്ന ആണേൽ ബുദ്ധിമുറ്റുകളൊന്നും വന്നിട്ടില്ല ഇതുവരെ അത്യാവശ്യം നല്ല ഇതിൽ മലയാളം എഴ്താനും വായിക്കാനും അറിയാം പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളിതുവരെ നേരിട്ടിട്ടില്ല പിന്നെ അതിനെ ക്കുറിച്ച് നമ്മള് ബോതർ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലൊ നമുക്ക് ശെരിക്ക് ഹാൻഡിലെയ്യാൻ കഴിയുന്ന ഒരു ഭാഷ തന്നെയാണ് മലയാളം ഒര് ബുദ്ധിമുട്ടും ഇന്ന് വരെ നേരിട്ടിട്ടില്ല അതിപ്പം സംസാരിക്കുമ്പഴാണെങ്കിലും വായിക്കുമ്പഴാണെങ്കിലും എഴുതുമ്പഴാണേലും ഒര് കുഴപ്പമില്ല ഞങ്ങളുടെ മാതൃഭാഷ ഞങ്ങളുടെ അമ്മ മലയാളമാണ് മലയാളം